ഗദ്യമോ കവിതയോ എഴുതാൻ എനിക്ക് അറിയില്ലായിരുന്നു അവരൊക്കെ ഒരുപാട് എഴുതിയിട്ട് എനിക്ക് തരുമായിരുന്നു ഞാൻ അതൊക്കെ വായിച്ച് ഒരുപാട് സന്തോഷിക്കുമായിരുന്നു എന്നിരുന്നാലും ചെറു ചെറു കവിതകളൊക്കെ ചെറിയ ചെറിയ കഥകളൊക്കെ അവർക്ക് കൊടുക്കുമ്പോൾ അവരുടെ കണ്ണിൽ സന്തോഷം എനിക്ക് അറിയാൻ പറ്റും അവർക്കത് ഒത്തിരി ഇഷ്ടമായിരുന്നു എല്ലാരുടെ മുന്നിലും വായിച്ചും അധ്യാപകർക്കൊക്കെ കാണിച്ചു കൊടുത്തും വീട്ടിലൊക്കെ കൊണ്ട് കൊടുത്തും അവർ അതിനെ നല്ല രീതിയിൽ കൈമാറിയിരുന്നു എല്ലാത്തിലും ഓരോരോ ജന്മദിനങ്ങൾ വരുമ്പോൾ ചെറിയ ചെറിയ കവിതകളൊക്കെ കൊടുക്കുമ്പോൾ അവരിൽ സന്തോഷം ഞാൻ ഒരുപാട് അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട് അവർ തിരിച്ചും ഗദ്യങ്ങളും കവിതകളും ഒക്കെ തരുമായിരുന്നു